ഇപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങൾ മെയിനായിട്ട് അല്ലെങ്കിൽ പൊതുവെ വരണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നികൾ അതുപോലെ ഈ കീടങ്ങൾ പിന്നെ പക്ഷികൾ പിന്നെ പാറ്റ പിന്നെ വവ്വാൽ ആ അങ്ങനെയുള്ള ഇതാ ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയിടങ്ങളിൽ മെയിനായിട്ട് വരുന്നത് ഇപ്പോൾ പന്നി വന്നു കഴിഞ്ഞാൽ വാഴ അതുപോലെ ഈ ചേമ്പ് ചേന കൊള്ളി പിന്നെ പൂള് കൂവളം അങ്ങനെ കുറെ കൂ അങ്ങനെ നമ്മളെ ഈ മണ്ണിൻ്റെ അടിയിൽ വെക്കുന്ന എല്ലാം ഏകദേശം ഇപ്പം അതുപോലെ പയർ ചെടികൾ ഒക്കെ അവർ വന്ന് ഇങ്ങനെ കുത്തി മലർത്തിയിട്ട് പോകും അതാണ് പന്നികളെ കൊണ്ടൊരു പ്രശ്നം അതുപോലെ ഇ പ ഈ പയർ ചെടിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ പുഴു കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ അതിനായിട്ട് അവർക്ക് എതിരു പറയുമ്പോൾ പന്നിക്ക് എതിരെ മെയിനായിട്ട് നമ്മള ഒരു ലൈറ്റ് രാത്രി ചെറിയ ഒരു ലൈറ്റ് സമയം വെളിച്ചം ഏതെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പന്നി വരാണ്ട് നോക്കാൻ പറ്റും അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാവണ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് പന്നിയെ ഓടിക്കാൻ പറ്റും പിന്നേ കിളികളും കാര്യങ്ങളും ഒക്കെ പിന്നെ അവർക്ക് അത്ര ഉപദ്രവം ഇല്ല എന്നാലും അവർ ജസ്റ്റ് പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരും പോകുകയൊക്കെ ചെയ്യും അപ്പോൾ ചെറിയ സൗണ്ട് ഉണ്ടാകുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ അനങ്ങി കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് വരും പിന്നെ നമ്മൾ ഈ മെയിനായിട്ട് പാ പാറ്റ പുഴു അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പച്ചില മരുന്നുണ്ട് നമ്മൾ അത് ഇപ്പോൾ ഈ കുറേ ചാണക വെള്ളം അതുപോലെ ഗോമൂത്രം അങ്ങനെ രണ്ട് മൂന്ന് സാധനം എല്ലാം കൂടി കലക്കി ഈ യുനാനീൻ്റെ വെള്ളം അതൊക്കെ കലക്കിയിട്ട് ഇതിൻ്റെ ഇലയിൻ്റെ ഇടയിൽ സ്പ്രൈ ചെയ്യുക അല്ലെങ്കിൽ ചെടിയിൽ ഒക്കെ തളിച്ച് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്നും നമുക്ക് നമ്മുടെ വിളകളെ ഒഴിവാക്കാൻ പറ്റും